ഹലോ മത്ത് മത്തിക്ക് ഒക്കെ എത്രയാ റേറ്റ് വരുന്നത് ആ അത്രേ ഉള്ളൂ അല്ലേ പിന്നെ നമുക്ക് ഫ്രഷ് ആണോ അത്യാവശ്യം നല്ല ഫ്രഷ് ആണോ മീന് ആണല്ലേ ആ ആ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് ആണല്ലേ ആ ആ അതിന് ഒക്കെ എത്രയാ റേറ്റ് വരുന്നത് ഹ്മ് ഇരുന്നൂറ് വരും അല്ലേ എങ്ങനെ ടേസ്റ്റ് ഉള്ളത് ആണോ ഞാൻ ഇതുവരെ കഴിച്ചിട്ട് ഇല്ല ഞാൻ കഴി അല്ല നിങ്ങൾ ഇപ്പോൾ കട്ട് ചെയ്ത് എല്ലാം റെഡി ആക്കി തരില്ലേ നമ്മള് ക്യാഷ് തന്നാൽ മതി അല്ലോ ആ ആ ഓക്കെ ഓക്കെ

ആ അയലയ്ക്ക് എങ്ങനെയാണ് റേറ്റ് ആണല്ലേ എല്ലാം ഫ്രഷ് ആണ് അല്ലേ ഹ്മ് നമുക്ക് ഫ്രഷ് ആണെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കാരണം നമ്മൾ ഇതിന് മുന്നേ മേടിച്ചിട്ട് അത് ഭയങ്കരം അതായത് നമ്മള് കണ്ടപ്പോൾ നല്ലത് ആയിരുന്നു വീട്ടില് വന്നപ്പോൾ അതില് ഫുള്ള് അതായത് ഭയങ്കരം ചീഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിൽ ആയിരുന്നു വീട്ടില് എത്തിയത് കാണുമ്പോൾ അതായത് നമ്മള് മേടിച്ചപ്പോൾ അവരും പറഞ്ഞത് രാവിലെ ഇപ്പോൾ കൊണ്ടുവന്നതെ ഉള്ളൂ നല്ല മീനാണ് വലിയ കുഴപ്പം ഇല്ല പക്ഷെ വീട്ടിൽ എത്തിയിട്ട് നമുക്ക് കറി വെച്ചിട്ട് വായില് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിച്ചത് ആണല്ലേ ഹ്മ് ഹ്മ് ഹ്മ് ഹോം ഡെലിവറി ഉണ്ടോ ആ എന്നാല് കരിമീൻ വേണം ആ കരിമീന് കരിമീൻ ഉണ്ടോ ഹ്മ് കരിമീൻ എങ്ങനെയാണ് റേറ്റ് എണ്ണൂറ് വരും അല്ലേ എന്നാൽ ഒരു കിലോ കരിമീൻ എടുത്തോ അത് ക്ലീൻ ആക്കിയിട്ട് തരണേ എങ്ങനെ റേറ്റ് വെച്ച് നിങ്ങള് പറഞ്ഞാൽ മതി പിന്നെ അതുപോലത്തന്നെ ഒരു കിലോ മത്തിയും ഒരു കിലോ അയലയും പിന്നെ നിങ്ങള് പറഞ്ഞ വെട്ടർ ഫിഷ് ഇല്ലേ അത് ഒരു അരകിലോ മതി അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നല്ലത് ആണെന്ന് അറിയില്ലല്ലോ ആ ആ ഓക്കെ അത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞോട്ടോ നമ്മൾ ഇവിടെ ബേപ്പൂര് തന്നെ ഹ്മ് ഓക്കെ ആ അങ്ങനെ ആണെൽ നിങ്ങള് ക്ലീൻ ചെയ്ത് ഇന്ന് കൊണ്ടുവന്നൊ ഞാന് ഇവിടെ വന്നിട്ട് ക്യാഷ് തരാട്ടോ ഓക്കെ

ഓക്കെ താങ്ക്യൂ